വല്ല്യ പ്രത്യേകതകളൊന്നുമില്ല നമ്മുടെ പ്രദേശത്ത് അങ്ങനെ വല്ല്യ പ്രത്യേകതകളൊന്നും വന്നിട്ടില്ല ഭക്ഷണം ഒക്കെ പിന്നേ വസ്ത്രവും ഒക്കെ ഒരു എല്ലാവരും ഇപ്പം ഇടുന്ന കാഷ്വൽ ആയിട്ടുള്ള ഭക്ഷ എല്ലാ സ്ഥലത്തും എവിടെ ചെന്നാലും നമുക്ക് എല്ലാ തരം ഭക്ഷണവും കിട്ടും വസ്ത്രവും അതേപോലെ ആരെയും പിന്നെ അടിച്ചമർത്തി അതുതന്നെ ധരിക്ക അങ്ങനെ ഒന്നും ഇല്ല എല്ലാവരും സാധാരണ വസ്ത്രങ്ങൾ അവർക്കിഷ്ടപ്പെട്ട വസ്ത്രങ്ങളും മാത്രമാണ് അവരണിയുന്നത്